എനിക്ക് കിട്ടിയിട്ടുള്ള ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രോഡക്റ്റ് എന്നുപറയുന്നത് മൊബൈൽ ഫോൺ ആണ് റെഡ്മിൻ്റെ നയൺ നോട്ട് നയൺ ആണ് ഫോൺ നല്ല ക്യാമറ ക്ലാരിറ്റി ഉണ്ട് എ ഐ സപ്പോർട്ടഡ് ക്യാമറയാണ് വെറും നാപ്പത്തെട്ട് എം ബി പിക്സല് സ്റ്റോറേജ് എയിറ്റ് ജി ബി റാമും അറുപത്തിനാല് ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജുമാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജുണ്ട് അത്പോലെ ഫോൺ നല്ല സ്മൂത്താണ് പ്രോസസ്സർ ഇൻ്റെൽ കോറിൻ്റെ പ്രോസസ്സർ ആണ് പ്രോസസ്സർ നല്ല സ്പീഡ് പ്രോസസ്സർ ആണ് അത്പോലെ ഒട്ടും തന്നെ ഒരു ലാഗോ ഒരു താമസമോ ഒന്നും വരുന്നില്ല പെട്ടെന്നുതന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫോണിൻ്റെ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല